ഒക്ടോബർ ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജാനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നവംബർ രണ്ട് രണ്ടായിരത്തി പതിനൊന്ന്